ഇത് ഗോകുലം ഫാമല്ലേ നിങ്ങടടുത്ത് കൂടുതൽ പോകണ പ്രോഡക്റ്റ് ഏതൊക്കെയാണ് ഉള്ളത് ഞാൻ ഓൺലൈനിലിങ്ങനെ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടാണ് നമ്പറ് കിട്ടിയതെനിക്ക് അപ്പം അവിടെ ഏതാ കൂടുതൽ മൂവുള്ള പ്രൊഡക്റ്റ് ഏതാണ് ആടിനെന്താണ് പ്രത്യേകത

ഓക്കെ അല്ല കൂടുതൽ മൂവ് ചെയ്യണ പ്രോഡക്റ്റേതാന്ന് വെച്ചാൽ അത് നമ്മളെടുക്കാന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാനിവിടെ ഓക്കെ ഓക്കെ അപ്പം നിങ്ങൾക്ക് ഡെലിവറി ഇല്ലാ ഓക്കെ നല്ലതാണെന്ന് തോന്നിയാൽ നമുക്ക് കണ്ടിന്യൂസായിട്ട് അവിടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാംന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ വിളിച്ചത് ഓക്കെ ഞാനൊരു ഡേറ്റ് നോക്കീട്ട് ഞാനറിയിക്കാം വിളിച്ചിട്ട് വരാം ഞാൻ ഓക്കെ ഓക്കെ താങ്ക് യൂ